ഇവരുടെ നെഗറ്റീവ് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് എന്താ പറയുക ഈ ഫോണില് ചാർജ് എത്ര വേഗത്തിൽ കയറുന്നുവോ അതിലും വേഗത്തിൽത്തന്നെയാണ് ഇത് ചാർജ് ഇറങ്ങിപ്പോകുന്നത് കാരണം ഫോണിൽ അങ്ങനെ ചാർജ് അധികനേരം നിൽക്കുന്നില്ല അതെന്താണെന്ന് വെച്ചാൽ ബാറ്ററി ബാക്കപ്പ് കുറവാണ് ഫോണിന് പിന്നെ എന്താ പറയുക ലാഗ് ഭയങ്കര ലാഗാണ് ഓരോ ആപ്പുകള് യൂസ് ചെയ്യുമ്പോഴും ഫോൺ ലാഗാവുന്നുണ്ട് ഏ ഭയങ്കരായിട്ട് പറയുക പെട്ടെന്നു തന്നെ ഫോണ് സഡൻ ആയിട്ട് നിന്നുപോവുകയും പിന്നെ എന്താപറയുക കുറെ നേരം കഴിഞ്ഞിട്ടൊക്കെയാണ് ചിലപ്പോൾ ഓപ്പൺ ആയി വരുന്നത് ലാഗ് അങ്ങനത്തെ ചെറിയ വിഷയുണ്ട് മ് പിന്നെ എന്താ പറയുക ഗെയിമിങ്ങിനൊന്നും ഇത് വലിയ ഇതല്ല കാരണം ഗെയിം കളിക്കാനൊന്നും എനിക്കിതിനകത്ത് പറ്റിയൊന്നുമില്ല കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗെയിമിങ്ങൊക്കെ കാരണം ലാഗ് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഓരോ ആപ്പുകള് യൂസ് ചെയ്യുമ്പോഴും ഫോണ് ചിലപ്പോൾ സഡൻലി നിന്നൊക്കെ പോവുന്നുണ്ട് പിന്നെ സിമുകള് മൈക്രോ സിമുകളൊക്കെയെ ഇതിനകത്തു യൂസ് ചെയ്യാൻ പറ്റുകയുള്ളു വലിയ സിമുകളൊന്നും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് ഈ ഫോണ് കൊണ്ടുണ്ടാകുന്നുണ്ട് പിന്നെ എന്താ പറയുക ഈ ഫോണില് ഡിസ്പ്ലേ ഡിസ്പ്ളേക്ക് കുഴപ്പമൊന്നും ഇല്ലെങ്കിലും ഫോണിൽ നിന്ന് ഇത് എന്താപറയുക പൊളിഞ്ഞുവരുന്നൊക്കെയുണ്ട് ഡിസ്പ്ലേ ഫോണുമായിട്ട് വിട്ടുപോരുന്ന ഒരു പ്രശ്നം കൂടി ഇതിനകത്ത് നിന്ന് കണ്ടുവരുന്നുണ്ട്